ഞങ്ങളുടെ പ്രദേശത്തിൻ്റെ തനതായ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ പ്രധാനമായും ചോറും കപ്പയുമൊക്കെയാണ് കിഴങ്ങുവർഗ്ഗങ്ങൾ വേവിച്ചു കഴിക്കുന്നതൊക്കെ ഈ പ്രദേശത്തിൻ്റെ ഒരു തനതായ വിഭവങ്ങളിൽ പെടുന്നതാണ് ചോറ് പ്രധാനമായിട്ടും നമ്മൾ ഉച്ചയ്ക്കാണ് കഴിക്കുന്നത് വൈകുന്നേരങ്ങളിലും പല വിഭവങ്ങളും കഴിക്കാറുണ്ട് ചോറ് ചോറും കറിയും ഒക്കെ പിന്നെ പ്രധാന അവസരങ്ങളിൽ വരുമ്പോൾ ചോറ് കല്ല്യാണത്തിന് കല്ല്യാണത്തിനും കല്ല്യാണം മാമോദിസ ഇങ്ങനെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് ചടങ്ങുകളിൽ സമയങ്ങളിലൊക്കെ ചോറ് അവിടെ വരുന്ന ആളുകൾ അതിഥികൾക്ക് ഭക്ഷണമായിട്ട് കഴിക്കാൻ കൊടുക്കാറുണ്ട് പിന്നെയുള്ളത് കിഴങ്ങു വർഗ്ഗങ്ങൾ ചേമ്പ് ചേന കാച്ചിൽ തുടങ്ങിയ മണ്ണിൽ വിളയുന്ന വിധത്തിലുള്ള കിഴങ്ങു വർഗ്ഗങ്ങളൊക്കെ ഈ വിഭവങ്ങൾ നമ്മൾ കഴിക്കാറുണ്ട് അതിൻ്റെ ചേരുവകളെന്താ പറഞ്ഞാൽ പച്ചയുള്ള ചേമ്പുകളും കഷണം ആക്കി വേവിച്ചെടുക്കുന്നു അത് കഴിക്കുന്നു അതിൽ നമ്മളത് ഒട്ടിച്ച് വെക്കുകയും മുളക് ചാലിച്ചൊക്കെ നമ്മൾ കറിയായിട്ട് കൂട്ടുന്നു ചോറിൽ ചേരുവകളെന്ന് പറയുമ്പം ചോറ് ആ അരി കഴുകി വെള്ളത്തിലിടുന്നു പിന്നെ പ്രധാനമായിട്ട് കറികളിലാണ് അതിൻ്റെ ചേരുവകൾ വരുന്നത് ഇറച്ചി പാകം ചെയ്യാറുണ്ട് പച്ചക്കറികൾ തോരൻ അവിയൽ സാമ്പാർ തുടങ്ങി കറികൾ അതിന് അതിൻ്റെ കൂടെ വരുന്ന ചേരുവകളാണ് പിന്നെയുള്ള കപ്പ ബിരിയാണി പോലെയുള്ള വിഭവങ്ങളൊക്കെ വൈകുന്നേരങ്ങളിൽ പല ഭവനങ്ങളിലും അവർ ഉണ്ടാക്കാറുണ്ട് പ്രധാനമായിട്ടും കല്ല്യാണത്തിൻ്റെയൊക്കെ തലേദിവസം മധുരം വെപ്പുപോലുള്ള ചടങ്ങുകളിലൊക്കെ കപ്പ ബിരിയാണിയൊക്കെ ആളുകൾ വരുന്ന അതിഥികൾക്ക് കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെയാണ് ഇത് കാര്യങ്ങൾ